ആ അതെ അതെയതെ ആ ആ ഹാ ആ അത് ഞാൻ അതിൻ്റെ മൂന്ന് പാറ്റേൺ ഞാൻ അയച്ചുതന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിരുന്നോ ഓ അതേ പാറ്റേൺ മതിയോ ആ അതെ അതെ ആ എസ് എമ്മിലെ ലോഗോ ഞങ്ങളായിരുന്നു ചെയ്തിരുന്നത് ആ ഓക്കെ ആ ലെറ്റർ വെച്ചിട്ടുള്ള ആ ഒരു ലോഗോ അല്ലേ അത് ഇഷ്ടപ്പെട്ടല്ലേ ഓക്കെ അതേ അതേ പാറ്റേൺ മതിയോ വ്യത്യസ്തമായിട്ടല്ലേ ആ അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഞങ്ങളാ മിക്ക ഹോസ്പിറ്റലിന്റെയും ഒക്കെ ഞങ്ങളാണ് ലോഗോ ചെയ്തതത് അതെ ഒരു പാറ്റേൺ മതിയല്ലോ അത് നമുക്ക് ചെയ്യാം ചെയ്യാം അത് ഞാൻ ചെയ്തിട്ട് ഞാൻ മാഡത്തിൻ്റെ വാട്സാപ്പിൽ ഇട്ട് ഇട്ടു തരാം അതൊന്നു നോക്കി ഒന്ന് കൺഫേം ചെയ്താൽ മതിയേ ഇപ്പം ഞങ്ങൾ മറ്റേ ആ വർക്കുകളെല്ലാം ചെയ്തു വെച്ചേക്കുവാണ് ഡിസൈൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കാ പാറ്റേൺ ഏതാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അതിനു വേണ്ടീട്ടാണ് ഞാനത് വാട്സാപ്പിൽ ഇട്ടുതരാം റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ കുറച്ചു വർക്കും കൂടി ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അതൊരു ഇരുപത് രൂപ ആവും ഇരുപതിനായിരം രൂപ ആവും എവിടെയാണ് ആ ട്രിവാൻഡ്രത്ത് നമ്മുടെ സ്ഥാപനം ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത് ആ ട്രിവാൻഡ്രത്ത് അതായതു സ്റ്റേഡിയം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പാളയത്തേക്ക് വരുമ്പോഴേ അവിടെ റൈറ്റ് സൈഡിന് നമ്മുടെ ഷോപ്പുണ്ട് അവിടെയുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ എത്തിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്തുതരാം കാരണം നമുക്കൊരു വർക്കുംകൂടി ലഭിക്കുന്നതല്ലേ നിങ്ങളെപ്പോലുള്ള കസ്റ്റമറാണ് നമുക്ക് ഇതുപോലെ പറഞ്ഞു പറഞ്ഞാണ് ഓരോ വർക്കുകൾ തരുന്നതേ കൂടുതലും ഞങ്ങൾക്കു വരുന്ന വർക്കുകൾ അങ്ങനെയാ വരുന്നത് ആൾക്കാർ തൃപ്തിപ്പെട്ടിട്ട് അവരാണ് മറ്റേ ആൾക്കാരോട് സംസാരിച്ചാണ് നമുക്ക് കൂടുതലും വർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് ചെയ്തതിനുശേഷം മാഡം തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളും അടുത്ത വർക്കുകൾ വരുമ്പോഴേ കാരണം നമ്മൾ ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ വർക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്തുകൊടുക്കുന്നതേ നമ്മൾ ഇതിനോടുള്ളൊരു പാഷൻ ഉണ്ട് അതുകൊണ്ടാണ് അപ്പം അവിടെയുള്ള നമ്മുടെ സജീവേട്ടനെന്ന് പറയുന്ന പുള്ളിയാണ് അത് ഇവിടെ ആ ഷോപ്പിലുള്ളതെ ഇപ്പം സജീവേട്ടൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ തരാം അപ്പോൾ ഫ്രണ്ടിനോട് അവിടെയൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി സജീവേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അവിടുത്തെ ഡിസൈൻ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാം ലോഗോ ഒക്കെ ചെയ്യാം ഞാൻ അപ്പോൾ ഈ ലോഗോ ചെയ്തത് മാഡത്തിന് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം പിന്നെ നമ്മളിരുപതു രൂപയാണ് അത് അതിലെ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പത്തൊൻപതിനായിരം രൂപ ആയിരം രൂപ ഞാൻ കുറച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ അത് എങ്ങനെ ഗൂഗിൾ പേ ചെയ്യുമോ അതോ ക്യാഷ് ആയിട്ട് ആ ഗൂഗിൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേ ചെയ്താൽ മതി എൻ്റെ എൻ്റെ ആ എൻ്റെ ദാണ്ടെ ഇവിടെ അതൊന്നുകിൽ ഈ നമ്പറിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ദാണ്ടേ സ്കാനർ ആ ഓക്കെ ഓക്കെ ആ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോടുണ്ട് എറണാകുളത്തുണ്ട് നമുക്ക് നാല് സ്ഥാപനം ഉണ്ട് ഇപ്പോൾ നിലവിൽ നാല് സ്ഥാപനം ഉണ്ട് നാല് സ്ഥാപനത്തിലും ഞങ്ങളുടെ മികച്ച ആൾക്കാർ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെത്തന്നെ ലോഗോയും കാര്യങ്ങൾ എല്ലാം എന്താ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതേ ആ നമ്മൾ കുറച്ചുകൂടെ മാസ്സായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കസ്റ്റമർ വരുന്നുണ്ട് പുതിയ പുതിയ സ്റ്റാർട്ട് അപ്പ് കമ്പനികൾ വരുന്നുണ്ട് അവരുടെ ലോഗോ ചെയ്യാനും അവരുടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ വരുന്നുണ്ട് മ് അതുപോലെ എൻ്റെ മാഡത്തിനു അറിയാവുന്നവരെ കൂടി ഒന്ന് പറഞ്ഞുവിട്ടാൽ നല്ലതായിരിക്കും വലിയ കമ്പനികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ ആ പറഞ്ഞോളൂ ആ ആ ഓ ഓ മാഡത്തിൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലേ ഓക്കെ ഓക്കെ ധൈര്യത്തോടെ റെക്കമെൻഡ് ചെയ്തുകൊള്ളൂ നമ്മുടെ വർക്കിനകത്തു അതിനകത്തു യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നന്നായിട്ട് ചെയ്യാം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു ആഹ്ളാദം എന്നു പറയുന്നത് കാരണം നമ്മളൊരു ടീമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും നന്നായിട്ടത് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാൽ ഞാനത് വൈകുന്നേരം തന്നെ ഇത് അയച്ചേക്കാമേ ശരി ശരി മാഡം